കേരളത്തിലെ വാർത്താമാധ്യമങ്ങളെന്ന് പറയുമ്പോള് എല്ലാം പത്രമാധ്യമങ്ങളാണെങ്കിലും ടി വി മാധ്യമങ്ങളാണെങ്കിലും ഓൺലൈനാണെങ്കിലും എല്ലാം ഈ പക്ഷപാതപരമായിട്ടൊക്കെ വാര്ത്തകൾ കൊടുക്കുന്നു സത്യസന്ധമല്ലാത്ത വാർത്തകൾ കൊടുക്കുന്നു പാർഷ്വാലിറ്റിയിൽ ഓരോ ജാതി മതസ്ഥരോടും പാർഷ്വാലിറ്റികള് കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് പിന്നെ ഭീഷണികൾ അവർക്ക് മാധ്യമപ്രവർത്തകർക്ക് ഭീഷണികളുണ്ടാകുന്നു നല്ല നല്ല വാർത്തകളൊക്കെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു നല്ല നല്ല വാർത്തകള് കൊടുക്കുന്ന മാധ്യമങ്ങളുമുണ്ട് ഭീഷണിക്ക് വഴങ്ങാത്ത മാധ്യമങ്ങളുമുണ്ട് പിന്നെ സെൻസർഷിപ്പ് സെൻസറിങ്ങ് ഒരു വിഷയമുണ്ട് എന്തെങ്കിലും നല്ലയൊരു വാർത്തയൊക്കെ വരുമ്പോള് അതിൽ സെന്സറിങ്ങൊക്കെ ഉണ്ടാകും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ വരും പക്ഷപാതപരമായിട്ട് വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളൊത്തിരിയുണ്ട് അവര് മറ്റുള്ളവരെ കളിയാക്കുന്നതിനും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനും ഒക്കെയായിട്ട് വ്യാജ വാർത്തകളൊക്കെ കൊടുക്കും വ്യാജ പരാതികളും അതിന് വലിയ വാർത്തകളൊക്കെ കൊടുത്ത് മാധ്യമങ്ങളിൽ വലിയ പബ്ലിസിറ്റി കൊടുക്കും ഓരോ മാധ്യമങ്ങളും ഇപ്പോൾ ഓരോ സമുദായത്തിൻ്റെ അല്ലെങ്കില് ഓരോ ജാതിയുടെ ഒക്കെ ചുക്കാൻ പിടിക്കുന്ന എന്നുപറഞ്ഞാല് അവരുടെ സപ്പോർട്ടോടുകൂടിയൊക്കെയായിരിക്കും ഇപ്പോള് ഓരോ മാധ്യമങ്ങളുമൊക്കെ മുന്നോട്ടുപോകുന്നത് അത് കാരണം അവർക്ക് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാകും നേരായ വാർത്തകൾ കൊടുക്കുന്നവരുമുണ്ട് വളച്ചൊടിച്ച് വാർത്തകൾ കൊടുക്കുന്നവരുമുണ്ട് മനുഷ്യര് ഈ പത്രമാധ്യമങ്ങളും ഇങ്ങനെയുള്ള ഈ വാർത്ത ചാനലുകളും ഇതൊക്കെ കണ്ടിട്ട് മനുഷ്യര് ചിലര് വിലയിരുത്തും ചിലര് ചില ചാനലുകൾ കാണുകയില്ല ചില പത്രങ്ങള് വായിക്കുകയില്ല വരുത്തുകയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്താണെങ്കിലും സിനിമ ഫീൽഡിലാണെങ്കിലും ഓരോ സിനിമ കോടികള് മുടക്കി ലക്ഷങ്ങള് മുടക്കി സിനിമ പിടിക്കുന്നു പിടിച്ചുകഴിയുമ്പോള് അതിലൊരു സമുദായത്തിനെ കുറ്റപ്പെടുത്തിയതാണെന്നും പറഞ്ഞുകൊണ്ട് അവര് തുടങ്ങും വേറെ സമുദായക്കാര് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും പറഞ്ഞ് വേറെ സമുദായക്കാര് ഇറങ്ങും അതു പിന്നെ അങ്ങോട്ടുമിങ്ങോട്ടും വലിയ വിവാദമാകും അത് പത്രമാധ്യമങ്ങള് ഏറ്റെടുക്കും ഏറ്റെടുത്തുകഴിഞ്ഞ് അങ്ങനെ അത് വിവാദമാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് സെൻസറിങ്ങുണ്ട് കട്ടിങ്ങുണ്ട് ഇതൊക്കെ വന്നുകഴിയുമ്പോള് ജനങ്ങൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരുന്നു ജനങ്ങളെപ്പോഴും സത്യസന്ധമായ വാർത്തകളോടാണ് ജനങ്ങൾക്ക് താല്പര്യം നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകളോടാണ് ജനങ്ങൾക്ക് താല്പര്യം അങ്ങനത്തെ വാർത്തകൾ കിട്ടാനാണ് ജനങ്ങള് കാത്തിരിക്കുന്നത് ഈ ഓരോ സമുദായവും ഓരോ പത്രങ്ങളും അങ്ങനെയല്ലെങ്കില് ഓരോ ചാനലുകളും തുടങ്ങി അവരവരുടെ സമുദായത്തെ ബൂസ്റ്റ് ചെയ്യാനും അവരുടെ സമുദായത്തിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുമ്പോള് അത് മറ്റുള്ളവർക്ക് പിടിക്കാതെ വരുന്നു മറ്റുള്ളവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു അങ്ങനെ വരുമ്പോള് എല്ലാ സമുദായത്തിനും ഓരോ ചാനലുകളുണ്ടാകും പത്രമാധ്യമങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ വന്ന് ജനങ്ങൾക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് നല്ല കൃത്യമായ ഒരു സത്യസന്ധമായൊരു വാർത്ത കൊടുക്കുന്ന ഒരു ചാനല് അല്ലെങ്കിൽ ഒരു പത്രം എന്നുപറയാൻ ഒരു പത്രവുമില്ല എല്ലാ പത്രത്തിനും അവർക്ക് അവരുടെ അല്ലെങ്കില് ആ പത്രത്തിൽ ജോലി ചെയ്യുന്ന പത്രാധിപർക്കോ അവരുടെ സ്റ്റാഫുകൾക്കോ ഒക്കെ അവര് അവരുടേതായ രീതിയിൽ അവർക്ക് സപ്പോർട്ടുള്ള ഇടത്തോട്ടൊക്കെ തിരിഞ് അവര്ക്ക് സപ്പോർട്ടുള്ളവരെയൊക്കെ എടുത്ത് മറ്റുള്ളവരെ ഇകഴ്ത്തിക്കാണിച്ചും അവർക്ക് സപ്പോർട്ടുള്ളവരെ പുകഴ്ത്തിക്കാണിച്ചും അങ്ങനെയൊക്കെയായിട്ട് അവര് വാർത്തകൾ കൊടുക്കും അങ്ങനെ മുന്നോട്ടുപോകും എന്താണെങ്കിലും ജനങ്ങള്ക്ക് സത്യസന്ധമായ പത്രവാർത്തകൾ വരുന്നതാണ് ജനങ്ങൾക്കിഷ്ടം താല്പര്യവും നല്ല ചാനലുകളും നല്ല പത്രങ്ങളും പത്രമാധ്യമങ്ങളുമൊക്കെ ഉണ്ടാകുന്നതാണ് ഇഷ്ടം സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നതാണ് ഇഷ്ടം കേരളത്തിലെയാണെങ്കിലും എല്ലാ മാധ്യമങ്ങളും കുറച്ചുംകൂടെയൊക്കെ സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കാൻ ജനങ്ങൾക്ക് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും സത്യസന്ധമായ വാര്ത്തകൾ കൊടുക്കാൻ ശ്രമിക്കണം അങ്ങനെ കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഒരു പത്രപ്രവർത്തനമെന്നും പറഞ്ഞിട്ട് വേറെയൊരാളെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കില് വേറെയൊരാൾക്ക് ദോഷമുള്ള രീതിയിലോ വാർത്തകൾ കൊടുക്കുകയും അങ്ങനെ പരസ്യ പ്രചാരണം നടത്തുകയുമൊക്കെ ചെയ്യുമ്പോള് സോഷ്യൽ മീഡിയ ഇപ്പം ഒരു വിഷയം തന്നെ നാല് മീഡിയകളിലും നാല് രീതിയിലായിരിക്കും അതിൻ്റെ ആൻസര് വരുന്നത് അങ്ങനെയൊക്കെ വന്നുകഴിയുമ്പോള് മനുഷ്യന് ഇതില് ഏത് ശരി ഏത് തെറ്റ് അങ്ങനെയുള്ള ചിന്തകള് വരും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനുഷ്യന് മുന്നോട്ടുപോകുവാൻ ബുദ്ധിമുട്ട് വരും മനുഷ്യന് ആകപ്പാടെ എല്ലാം കൊണ്ടും നട്ടം തിരിയുകയാണ് സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും വർഗ്ഗീയമായിട്ടും ചേരിതിരിവായിട്ടും അങ്ങനെ ഓരോരോ വിഷയങ്ങളായിട്ടും എല്ലാം മനുഷ്യന് അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ അതിന്റെയിടയ്ക്ക് ഇങ്ങനത്തെ പത്രവാർത്തകളും മാധ്യമങ്ങളുമൊക്കെ ഓരോ വാർത്തകളൊക്കെ വിടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും മനുഷ്യര് ശ്രദ്ധിക്കണം പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കണം ഇതില് നല്ലതേതാണ് മോശമേതാണെന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് പോകാൻ പഠിക്കണം